ചെറിയ ബിസിനസ് സംരംഭം എന്നു വെച്ചാൽ ഒരുപാട് ബിസിനസ് സംരംഭങ്ങളുണ്ട് അതിൽ ഏറ്റവും ചെറുതായിട്ട് പറയുന്നയാണെങ്കിൽ വീടുകളിൽ തന്നെ അമ്മമാർ ഉണ്ടാക്കുന്ന സോപ്പു നിർമ്മാണം സോപ്പ് നിർമ്മാണം എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ തന്നെ അത് ഉണ്ടാക്കുവാനും പറ്റും പിന്നെ അതിന് പിന്നെ കൈക്ക് അലർജിയോ അങ്ങനത്തെ ഒരു ദോഷഫലങ്ങളും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ല ഒരു വ്യാപാര സംരംഭമാണ് സോപ്പ് നിർമ്മാണം പിന്നെ രണ്ടാമതായി പറയേണ്ടതാണ് പ്രതിമ നിർമ്മാണം റോഡ് സൈഡികളിലൊക്കെ നല്ല നല്ല പ്രതിമകൾ വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷവും ആനന്ദവും എല്ലാം തോന്നും അത് കാണുമ്പോൾ നല്ല കൃഷ്ണ പ്രതിമയൊക്കെ കാണുമ്പോൾ അത് വീടുകളിൽ തന്നെ കളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും അത് വീടുകളിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റേതായ നല്ല ഗുണമുണ്ട് പിന്നെ അടുത്തതായിട്ട് ഉള്ളതാണ് കൊണ്ടാട്ടം മുളക് അതായത് നമ്മൾ തന്നെ പറമ്പുകളിൽ കൃഷി ചെയ്യുന്ന മുളക് അതായത് കുഞ്ഞ് ഉണ്ട മുളക് അത് ഉണക്കി തൈരിൽ മുക്കി ഉണക്കി എടുത്ത് അത് ഒരു പാക്കറ്റ് ആക്കിയാൽ കടകളിൽ കൊടുക്കുകയാണെങ്കിൽ അതും നല്ലൊരു ബിസിനസ് സംരംഭമാണ് അതും കൂടുതൽ വിജയിക്കാൻ പറ്റുന്ന ഒരു ഒരു വ്യാപാരമാണ്